കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നമ്മളുടേതായ സംസ്കാരിക കാര്യങ്ങളെ വിട്ട് വെളിനാടുകളിലെ സംസ്കാരത്തെ പിന്തുടരാൻ നമ്മളുടെ സംസ്കാരമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരം മുണ്ട് ഷർട്ട് അല്ലെങ്കിൽ ഇതേപോലെ ധോത്തി എന്നൊക്കെ പറയുന്ന തോർത്തു കാര്യങ്ങൾ ഇവയാണ് പക്ഷെ ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് പാന്റ് ടീ ഷർട്ട് ഇതുപോലെ തുടങ്ങിയ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള് അമേരിക്കക്കാരുടെ അല്ലെങ്കിൽ ലണ്ടൻകാരുടെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് നമ്മളുടെ സാംസ്കാരിക വര്ഷം വസ്ത്രം എന്നുപറയുന്നത് മുണ്ടാണ് അല്ലെങ്കിൽ നല്ലൊരു കസവ് ഷർട്ട് ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരിക വസ്ത്രങ്ങൾ അതേപോലെതന്നെ പറഞ്ഞാൽ പട്ടുകൊണ്ട് നെയ്ത സാരികൾ പട്ടുകൊണ്ട് നെയ്ത തുണികൾ നമ്മളുടെ സംസ്കാരത്തിന് ചേർന്ന അനുയോജിച്ച കാര്യങ്ങൾ വസ്ത്രങ്ങൾ